ഹലോ അതേലോ ഹലോ അ എസ് ഓണറാണല്ലോ എന്താണ് സാർ ആ മീൻ ഉണ്ടല്ലൊ ചൂര ഉണ്ട് അയല ഉണ്ട് മത്തി ഉണ്ട് കൊഴുവ ഉണ്ട് സാറിന് ഏതാന്ന് പറയുകയാണെങ്കിൽ വലിയ മീന് മറ്റെ പോത ഉണ്ട് അത് മതിയോ കേര ഉണ്ട് പോത ഉണ്ട് ഓലക്കൊടിയൻ ഉണ്ട് ഓലക്കൊടിയൻ സാറേ ഇപ്പം ഒരു നാന്നുറ്റി എൻപത് രൂപ വരും കിലോയ്ക്ക് കൂടുതൽ എന്ന് പറയുമ്പോൾ സാറെ ഇപ്പം നിലവിൽ മീനിനെല്ലാം ഇച്ചിരെ ക്ഷാമമാണ് മീനൊക്കെ വരാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും സാറിന് എത്ര കിലോ ആണ് വേണ്ടത് നമുക്ക് പരമാവധി അഡ്ജസ്റ്റ് ചെയ്യാം ആ മ്മ്

എന്തോ ഹോം ഡെലിവറി ഉണ്ട് സാറേ സ്ഥലവും അതിൻ്റെ ഫോൺ നമ്പരും ഒക്കെ പറഞ്ഞാൽ മതി പെയ്മെൻറ്റിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അത് അനുസരിച്ച് കൊടുത്തു വിടാം

അത് സാറേ ഓർഡർ അനുസരിച്ച് ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് ആ അത്രെയും ഉള്ളല്ലെ ഓ അത് വലിയ താമസം വരികയില്ല സാറ് എന്തേലും ക്വാളിറ്റി പറയുകയാണെങ്കിൽ അതനുസരിച്ച് അത് നമുക്ക് ക്ലീൻ ചെയ്ത് പീസാക്കുന്ന സമയമേ വരികയുള്ളു വേറേ താമസങ്ങളൊന്നും ഇല്ല മ്മ്

അ ആ പത്ത് കിലോ ആ ഓക്കെ സാറേ നമുക്കൊരു നാനൂറു രൂപ പെർ കെജിയിൽ നമുക്കെടുക്കാൻ പറ്റും അത് കുഴപ്പം ഇല്ല സാറിന് ചെറിയ കഷ്ണങ്ങളായിട്ടാണോ വേണ്ടിയത് വലുതായിട്ടാണോ വേണ്ടിയത് ചെറിയ കഷ്ണങ്ങളായിട്ട് മതി ആ എന്നാൽ അത് പീസാക്കി നമ്മൾ ഇപ്പം തന്നെ വെച്ചേക്കാം അക്കൗണ്ട് നമ്പർ ഇട്ടാൽ സർ ഗൂഗിൾ പേ ചെയ്യുമോ അതൊ അവിടേക്ക് വരുമ്പം ആണോ കൊടുക്കുന്നത് ആ ഓക്കെ സാറെ അപ്പം ഞാനിത് പീസ് ചെയ്യാൻ പറഞ്ഞേക്കാം സാറിന് ഒരു പത്ത് കിലോ പത്ത് പത്തര കിലോക്കകത്ത് സാധനങ്ങൾ വെച്ചേക്കാം കേട്ടൊ സാറേ ആ ഇന്ന് രാവിലെ വന്നതാണ് നല്ല ഫ്രഷായിട്ടുള്ള സാധനങ്ങളാണ് ഓക്കെ സാറെ ഞാന് അവിടെ ഇപ്പോൾ ഇവിടെ കസ്റ്റമേഴ്സിൻ്റെ അവിടെ നിൽപ്പുണ്ട് കുഴപ്പം ഇല്ല വില ഞാൻ അവിടെ ശരിയാക്കാൻ പറഞ്ഞിട്ട് പറഞ്ഞേക്കാം ഒരു ആ ഒരു എഴുപത്തഞ്ച് മിനിറ്റുനുള്ളിൽ സാറിന് സ ഒര മുക്കാൽ മണിക്കൂറിനുള്ളിൽ സാറിന് അവിടെ സാധനം എത്തും സാറെ ഓക്കെ ഓക്കെ താങ്ക്യൂ